ശരീരഭാരം കൂട്ടാൻ ഞങ്ങളുടെ ഗ്രാമത്തില് നാട്ടു വൈദ്യങ്ങള് ചെയ്യുന്നത് പ്രസവരക്ഷയാണാദ്യം മെയ്നായിട്ട് നാട്ടില് ചെയ്യുന്നത് ആ അത് ആട്ട് മരുന്ന് ആട്ട്സൂപ്പ് എണ്ണ കുളി പിന്നേ ചീര പച്ചക്കറി കൂട്ടാനുകള് പഥ്യം പിന്നെ സാധാരണ ആൾക്കാര് വണ്ണം വയ്ക്കുവാൻ വേണ്ടി ശരീര ഭാരത്തെ നന്നാക്കാൻ വേണ്ടി ദഹനത്തിന് രസം വെച്ച് കുടിയ്ക്കും ആട്ട് സൂപ്പ് കഴിക്കും ഇങ്ങനെ ഉള്ള കുറെ വൈദ്യങ്ങള് പിന്നെ കുളി നല്ലെണ്ണ തേച്ച് കുളിക്കുക കുറച്ചു നേരം അതിൻ്റെ പഥ്യങ്ങള് എടുക്കുക തിരുമ്മല് കഴിയുമ്പോളത് ഒരൂ പതിനഞ്ച് ദിവസത്തെ തിരുമ്മി കഴിഞ്ഞാൽ ആ പതിനഞ്ച് ദിവസം പഥ്യങ്ങൾ പഥ്യങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മള് കഴിക്കാൻ പാടില്ലാത്ത കുറെ സാധനങ്ങളുണ്ട് അത് തരും അതെല്ലാം കഴിഞ്ഞു പിന്നെ റെസ്റ്റ് കഴിഞ്ഞ് ആണ് നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളു തിരുമ്മലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ശരീര ഭാരം കൂട്ടാൻ നോക്കും പിന്നെ ശരീരത്തിന് നല്ല രീതിയിൽ കൊണ്ട് പോകാൻ നോക്കും പ്രെസവരെക്ഷയാണ് കൂട്തലും ഗ്രാമങ്ങളില് നടത്തുന്നത്